കലയിലും കരകൗശലത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട് അതുപോലെയാണ് ഇന്ന് ഒരുപാട് ആളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അത് പരിശീലിക്കുകയും അതനുസരിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും പ്രകടിപ്പിക്കുന്നതനുസരിച്ച് അവർക്ക് സമൂഹത്തിൽ സ്ഥാനങ്ങൾ അംഗീകാരങ്ങൾ ലഭ്യമാകുകയും അത് അവർക്ക് അനുകരിക്കാൻ മറ്റു അവരെ മറ്റുള്ളവർ അനുകരിക്കാൻ സഹായിക്കുകയും അതുപോലെത്തന്നെ അവർ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരന്വേഷണ ത്വര ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു അതുപോലെത്തന്നെ അവർക്ക് കൂടുതൽ ഫാഷനുകൾ പുതുമകൾ ഒക്കെ മനസ്സിലാക്കുന്നു ഇത് സമൂഹത്തിന് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ വേദി ഉണ്ടാക്കുന്നു ആ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുവാനായിട്ടുള്ള സഹായം ഈ സോഷ്യൽ മീഡിയയിലൂടെ ലഭ്യമാകുന്നു കൂടുതൽ ചാനൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പ്രചരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ടാവുന്നു അപ്പം എന്താ തങ്ങളുടേതായ കഴിവുകൾ കൂടുതൽ കണ്ടെത്തുവാനും കഴിവുകൾക്ക് അനുസൃതമായിട്ട് ഇതിനെ വിപുലപ്പെടുത്തുവാനും ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ സഹായകമാകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പ്രോത്സാഹനവും അംഗീകാരവും അതുപോലെത്തന്നെ പിന്നെ അതിനുള്ള വേദികളും എല്ലാം ലഭ്യമാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു യൂട്യൂബ് ചാനലുകൾ കൂടുതൽ തുടങ്ങുവാനായിട്ട് സാധിക്കുന്നു അതുപോലെത്തന്നെ കൂടുതൽ കൂടുതൽ ഫാഷൻ ടെക്നോളജിയിലേക്ക് അവർക്ക് എത്തപ്പെടാനായിട്ട് സാധിക്കും അതുപോലെത്തന്നെ കൂടുതൽ ഫാഷൻ ടെക്നോളജിയിലേക്ക് കൂടുതൽ കൂടുതൽ പരിശീലകരെ കണ്ടെത്തുവാനും വർദ്ധിപ്പിക്കുവാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഒക്കെ ഇത് സഹായകമാവുന്നു ഈ തൊഴിലവസരങ്ങളിലൂടെ വരുമാനമാർഗ്ഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു അതിലൂടെ മാനസികമായിട്ടുള്ള ഒത്തിരി സംതൃപ്തി നേടാൻ സാധിക്കുന്നു മാനസികവും ഉല്ലാസം ആരോഗ്യം അതുപോലെത്തന്നെ ടെൻഷനുകളിൽ നിന്നൊക്കെ വിടുതൽ ലഭ്യമാകുന്നു അതുപോലെത്തന്നെ കൂടുതൽ ആളുകളും ആയിട്ട് ഇടപെടുവാനായിട്ട് സാധിക്കുന്നു ഒരു പിന്നെ സംഘടനാതലങ്ങളിൽ ഇത് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നു സംഘടനകളിലൂടെ കൂടുതൽ ആളുകളെ പ്രമോട്ട് ചെയ്യുവാനും കൂടുതൽ ആളുകളെ പരിശിലിപ്പിക്കുവാനും പരിശീലനങ്ങൾ ഒത്തിരി ഉപയോക്തമാക്കുന്ന രീതിയിലേക്ക് ഈ ചാനലുകളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു അപ്പം വിവിധ വിധ കലകളും വിവിധ വിധ പിന്നെ ഫാഷൻ മെതേടുകളൊക്കെ ആളുകൾക്കൊത്തിരി അപ്രാപ്യം ആയിരുന്ന കാലഘട്ടം മാറിക്കടന്നു എന്ന് ഈ ചാനൽ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇങ്ങനെ ആൾക്കാർ നല്ലൊരു പിന്നെ ഒരു കൂട്ടായ്മയിലേക്ക് വരുവാനും കൂട്ടായ്മ വഴി അവരുടെ ആ ഒരു കലയോടും ക്രാഫ്റ്റിനോടും ഉള്ള തെറ്റിദ്ധാരണകൾ അവർക്ക് മാറിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് പിന്നെ അവർക്ക് സാധ്യമല്ലാത്ത നമ്മുടെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആ മേഖലകളിലേക്ക് ആളുകൾ കടന്ന് വരുവാനും കടന്നുവരുന്നതിനനുസരിച്ച് അത് പ്രാവർത്തികമാക്കുവാനും പ്രവർത്തികമാക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളെ കണ്ടെത്തുവാനും പിന്നെ ആൾക്കാർ കൂടുതൽ വേദികൾ ഒരുക്കി എടുക്കുവാനും തങ്ങളുടെ മുരടിച്ചു പോയ കഴിവുകളെ ന്നുകൂടെയൊന്ന് തട്ടി ഉണർത്തുവാനും ഒക്കെ ഇത് സഹായിച്ചു